നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചൂടാണ് ഇവിടെ നമുക്ക് മഴ മഴക്കാലത്ത് കുഴപ്പമില്ല മഴയൊക്കെയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യാറുണ്ട് മഴ നമുക്ക് കിട്ടാറുണ്ട് നല്ല മഴ മഴക്കാലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള മഴ കിട്ടാറുണ്ട് പക്ഷെ വരണ്ട കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാർച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കുറച്ച് വരണ്ട കാലമായിട്ട് എനിക്ക് ഫീല് ചെയ്യാറ് വെള്ളത്തിന് കുറച്ച് ക്ഷാമമൊക്കെ ആയിട്ട് ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു കാലഘട്ടം ഭയങ്കര ചൂടാണ് നമുക്ക് മഴക്കാലം കഴിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഭയങ്കര ചൂട് നമുക്ക് എന്താ പറയുക ഇവിടെ ഉള്ളവർക്ക് ഇത് സാധാരണമാണ് നമുക്ക് ശീലമായിട്ടുണ്ട് പക്ഷേ എന്താ പറയുക നല്ല രീതിയിൽ ബാധിക്കുക പറഞ്ഞാൽ പിന്നെ വലിയ കൃഷി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കൃഷിയിലൊക്കെയാണ് നമുക്ക് ബാധിക്കുക നമുക്ക് വെള്ളം നനച്ച് കൊടുക്കണം പിന്നെ ഇടയ്ക്ക് ഒരു തോടും പുഴയുമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വെള്ളം നനയ്ക്കാൻ പറ്റും കൃഷിയിലേക്ക് പക്ഷെ എന്നാലും നല്ല കഠിനമായിട്ടുള്ള വെയിലാണ് നല്ല വെയിലാണ് നമുക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വെയില് നമുക്ക് ഫീല് ചെയ്യും നല്ല ചൂടാണ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ അസഹ്യമായ ചൂട് പിന്നെ നമുക്ക് നമ്മൾ കാലങ്ങളായത് കൊണ്ട് നമക്കത് വലിയ സീനില്ല അങ്ങു പോവുക തന്നെ പക്ഷെ ചൂട് നല്ല രീതി ചൂടുണ്ട് പിന്നെ മഴക്കാലത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മഴ കൃത്യസമയത്ത് കിട്ടാറുണ്ട് നല്ല രീതിൽ ഇതാക്കുന്നുണ്ട് തണുപ്പങ്ങനെ എനിക്ക് ഇതങ്ങനെ തണുപ്പങ്ങനെ ഫീല് ചെയ്യാറില്ല തണുപ്പ് കാലം അങ്ങനെ ഇല്ല എന്നാണെൻ്റെ ഒരു ഇത് ചൂട് തന്നെയാണ് കൂടുതലും